ചെറുപ്പകാലത്ത് ഇപ്പോൾ നമ്മൾ വലിയ ഏട്ടന്മാരുടെ കൂടെയൊക്കെ മീൻ പിടിക്കാൻ പോകും അവര് ചെയ്യുന്നത് നമ്മള് കളിക്കാൻ പോകുമ്പോൾ അല്ലെങ്കില് പകൽസമയത്ത് അല്ലെങ്കിൽ രാവിലെ നേരത്തെ ഒക്കെയാണ് അവര് മീൻ പിടിക്കാൻ പോകുക അവര് ഒരു ചെറിയ ഒരു ചൂണ്ടക്കോൽ അതിലെ ചൂണ്ട കൊളുത്തി അങ്ങനത്തെ മറ്റേ ചെറിയൊരു നാര് പിന്നെ മീൻ പിടിക്കാൻ വേണ്ടിയുള്ള കുറച്ചു തേ ഇര അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടാവാറ് അവരെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അവരെ കൂടെ പോകും അങ്ങനെയാണ് മീൻ പിടിക്കാൻ ഒക്കെ പഠിച്ചത് നമ്മളെ തോട്ടില് അതുപോലെ പുഴ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒക്കെയാണ് മീൻ പിടിക്കുക മുമ്പ് അവിടെ പോവണ സമയത്ത് ചേട്ടന്മാരെ പോവും അവരെ പിടിക്കണത് കാണാനൊക്കെ നല്ല രസമാണ് അതെന്താണ് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ കൊളുത്തിട്ട് വലിക്കുമ്പോൾ അതിൻറെ പിടച്ചിലും ആ ഒരു ഇതൊക്കെ കാണാൻ നല്ലൊരു രസമാണ് പിടിച്ച് കിട്ടുമ്പോഴുള്ള സന്തോഷം അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ കാണാൻ നല്ല രസമാണ് ആ മീനിനെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ കിടന്ന് പിടക്കും ചിലത് ചാടി പോവും അതൊക്കെ ഒരു നല്ല രസമുള്ള പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ മീൻ പിടിക്കാ എന്ന് പറയുമ്പോൾ വളരെയധികം ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് ആദ്യം നമ്മൾ പതുക്കെ അധികം ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കാണ്ട് അല്ലെങ്കിൽ വെള്ളം കലക്കാണ്ട് ചൂണ്ടയില് ഇരേനെ കൊളുത്തി ഇട്ടുകൊടുക്കണം എന്നിട്ട് കുറച്ചുനേരം അവിടെ ഇങ്ങനെ കുറച്ചു സമയം ഇരിക്കേണ്ടി വരും കൊത്താൻ ഒക്കെ ആയിട്ട് ചിലസമയത്ത് മീൻ കൊത്തണം എന്നും ഇല്ല അപ്പോൾ നമ്മൾ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കാ മീൻ കൊത്തി തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചുനേരം ഇപ്പോൾ രണ്ട് ആദ്യത്തെകൊത്തിൽ തന്നെ മീന് കൊളുത്തി കൊ ഇതില് കൊളുത്തില് കുടുങ്ങണമെന്നില്ല അപ്പോൾ നമ്മൾ കുറച്ചുനേരം വെയിറ്റ് ചെയ്തിരുന്ന് അതിൻറെ ടൈം കൊളുത്തിൽ കുടുങ്ങി അപ്പോൾ കുടുങ്ങി എന്ന് മനസ്സിലാവുക പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചൂണ്ട ഇങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടു പോകും ആ സമയത്ത് പതുക്കെ പതുക്കെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ നോക്കുക അപ്പോൾ അത് കൂടുതൽ കൂടുതൽ അങ്ങോട്ട് വലിക്കും അപ്പോൾ അതിൻറെ വായയുടെ ഉള്ളിലെ നമ്മുടെ കൊളുത്ത് ഫുൾ ആയിട്ട് കുടുങ്ങാൻ തുടങ്ങും ആ സമയത്ത് പതുക്കെ നമ്മൾ ഒന്ന് വലിച്ചു നോക്കുക അഥവാ അത് ബലം കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഫ്രീയായിട്ട് വിടാം അപ്പോൾ അത് മീൻ വീണ്ടും കൂടുതലായിട്ട് അതിൽ കടിക്കാനുള്ള ഒരു ഇത്ണ്ടാവും ഇര ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് കടിക്കാനുള്ള ഒരു അപ്പോൾ വലിച്ചു കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ സമയം കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റവലിക്ക് പൊക്കുക ആ സമയത്ത് നമുക്ക് അതിൻറെ മീനിനെ കിട്ടും